ആ എന്താ മോളേ അത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ കണ്ടോ ഗവൺമെൻ്റ് ഹോസ്പിറ്റല് ഈ ഹോസ്പിറ്റലിൻ്റെ സൈഡിൽ ആ റോഡ് കണ്ടോ അതിലെ പോയി കഴിഞ്ഞാല് ഇടത്തോട്ട് ഒരു റോഡ് ഉണ്ട് ആ ഇടത്തോട്ട് ഉള്ള റോഡ് നേരെ കോട്ടയിലേക്കാണ് അവിടെയാണ് ആ നേരെ റോഡ് കോട്ടയിലേക്ക് ആണ് ആ നടന്ന് പോകാനുള്ള ദൂരമെ ഉള്ളൂ നിങ്ങൾക്ക് വണ്ടി ഒന്നും വിളിച്ച് പോകേണ്ട അവശ്യമെ ഇല്ല ഒരു പത്തു മിനിറ്റ് സമയമേ വേണ്ടു ആ പത്തു മിനിറ്റെ ഉള്ളൂ മ് ആ ഉണ്ട് ഉണ്ട് ആ ഈ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ കോട്ട ആ കോട്ട കഴിഞ്ഞ് കോട്ട കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുന്നോട്ട് പോയ് കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടെ നിന്ന് ഇടത്തോട്ട് പോയാല് ഒരു പാരിസ് റസ്റ്റോറൻ്റ് ഉണ്ട് ആ വലിയ റസ്റ്റോറൻ്റ് ആണ് അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കോട്ട കണ്ടതിനു ശേഷം ആണോ പോകുന്നത് അവിടെ ഭക്ഷണം കഴിക്കാൻ അപ്പോൾ നിങ്ങള് കോട്ട കണ്ടിട്ട് പെട്ടെന്ന് ഇറങ്ങുകയാണെങ്കില് നിങ്ങൾക്ക് നല്ല ഫുഡ് കിട്ടും അവിടെ പെട്ടെന്ന് കഴിയും ആ അത്രയും തിരക്കാണ് നല്ല ഭക്ഷണം ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ അവിടെ നല്ല തിരക്ക് വന്നായിരിക്കും ആ എല്ലാം ഉണ്ട് കടൽ മീൻ എല്ലാം കിട്ടും അവിടെ കൊഞ്ച് ഫ്രൈ ഞണ്ട് ഫ്രൈ കൂന്തൽ ഫ്രൈ പിന്നെ പൊരിച്ച മീൻ പൊരിച്ച മീന് എന്താ വേണ്ടത് നിങ്ങൾക്ക് എല്ലാം കിട്ടും അത് പക്ഷേ എങ്കിൽ നിങ്ങൾ കുറച്ച് നേരത്തെ എത്തുവാണെങ്കില് ഇതെല്ലാം കിട്ടുമേ അവിടെ ഇപ്പോൾ തിരക്ക് കൂടിയത് കൊണ്ട് നല്ല നല്ല മീനോക്കെ വേഗം തീരാറുണ്ട് ഉണ്ട് ഉണ്ട് എല്ലാ കറിയും എല്ലാത്തിൻ്റെയും കറികളും ഉണ്ട് പൊരിച്ചത് ഉണ്ട് ഫ്രൈ ഉണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ഐറ്റംസാണ് വേണ്ടത് എല്ലാം അവിടെ ഉണ്ട് ഞാൻ ഇപ്പോൾ ആ ആ ഇതിപ്പോൾ ബിരിയാണി തന്നെയാണ് കൂടുതൽ ഇവിടെ ആ കടൽ മീൻ്റെ

ആ എന്നാൽ ശരി ശരി എന്നാല് ആ ശരി